ആ ഹലോ ഹലോ ജെയ്സിയാണോ ആ എന്താണ് ജെയ്സാ ആഹാ വീട് പണി പുതുക്കി പണിയുവാണ് ആ കോൺട്രാക്ട് കോൺട്രാക്ട് വ്യവസ്ഥ കൊടുത്തിരിക്കുവാണോ

ഓ അതൊക്കെ തമ്പുരാൻ കാത്തോളും ജെയ്സാ കുഴപ്പമൊന്നും വരത്തില്ല അപ്പം ആ ആ എല്ലാം ഭംഗിയായിട്ട് നടക്കും എന്നെ നമ്മളെല്ലാം ഒരുക്കിയാൽ മതി എന്തുവാ വീട് പണിയുന്നത് തമ്പുരാനാ നമ്മളെത്ര പൈസ ഉണ്ടാക്കി വെച്ചാലും നമ്മൾ അല്ലല്ലോ ഇത് ചെയ്യുന്നത് തമ്പുരാനല്ലേ ഇതെല്ലാം നടത്തി തരുന്നത് അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ജെയ്സാ എല്ലാം നടക്കും പണി തീർന്ന് കഴിഞ്ഞിട്ട് പിന്നെ വെഞ്ചിരിപ്പൊക്കെയില്ലേ ആ ആ എല്ലാ ആ ആ നല്ല സന്തോഷകരമായ കാര്യവല്ലേ വീടൊക്കെ പുതുക്കി പണിയുകാന്നുള്ളത് വീട് പണിയൊന്നും വിനെ നമ്മൾ വിചാരിക്കുന്ന ആ സമയത്തൊന്നും നടക്കത്തില്ല അതെല്ലാം തമ്പുരാൻ വിചാരിക്കണം പറയുന്ന കേട്ടിട്ടില്ലേ കല്യാണോം വീടുവൊക്കെ ഉണ്ടാകുന്നത് അതിനൊക്കെ ഒരു പ്രത്യേക സമയമുണ്ടെന്ന് അതുകൊണ്ടാണ് ജെയ്സിടെ സ

ആ ഇൻറ്റീരിയലിന് പാടില്ലലോ ഇൻറ്റീരിയറിന് കാലാവസ്ഥ പ്രശ്നം വരുന്നില്ലല്ലോ പിന്നെ കും പണിക്കാർക്ക് ഫുഡോ എന്തെങ്കിലും കൊടുക്കണോ അതോ അവർ കൊണ്ട് വരുമോ ആന്നല്ലിയോ ഓ അപ്പം എല്ലാം കൊണ്ടും പാടാണ് ആ സാരമില്ല നമ്മൾ നമ്മുടെ വീട്ടിൽ പണിയുന്ന ആൾക്കാർക്ക് ജോലിക്ക് കാ ജോലിക്കാർക്ക് വിശപ്പിന് ആഹാരം കൊടുക്കുന്നത് നന്മയാണ് നല്ല കാര്യവാണ് എല്ലാം നന്നായിട്ട് വരട്ട് ഞാൻ പ്രാർത്ഥിച്ചോളാം കേട്ടോ ആ ശരി ശരി ഞാൻ വന്നാലും വരും തീർച്ചയായിട്ടും വരും ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇതൊക്കെ ഓർത്തോളാം എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കട്ട് കേട്ടോ എന്നാൽ പിന്നെ ശരി ഓക്കെ വെച്ചേക്കട്ടോ ഇച്ചിരി തിരക്കൊക്കെ ഉണ്ടല്ലോ ജെയ്സിക്കും നല്ല തിരക്കല്ലേ ആ ആന്ന് പിന്നെ ശരി ഓക്കെ ബെയ് കേട്ടോ പിള്ളാരോടൊക്കെ അന്വേഷിച്ചെന്ന് പറഞ്ഞേരെ ആ